എനിക്ക് കുറച്ചു ഫുഡ് പാർസൽ വേണമായിരുന്നു ഒരു രണ്ട് ബിരിയാണി ഒരു ബീഫ് ചില്ലി ഒരു ബട്ടർ ചിക്കൻ ദെൻ ചില്ലി ഗോബി ഒരു പനീർ മലായ് ടിക്ക ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് പാർസൽ ചെയ്ത് തരാമോ പണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഡെയിലി കസ്റ്റമേഴ്സാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് വന്നുകൊണ്ടിരുന്നത് അവനാണ് എനിക്ക് ഇവിടെ സജഷൻ ചെയ്തിരുന്നത് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവനാണ് എനിക്ക് റെക്കമെന്റ് ചെയ്ത് തന്നിരുന്നത് ഇവിടെ കൽപറ്റ തന്നെയുള്ളതാണ് അവനാണ് എനിക്ക് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും ഞങ്ങളിവിടെ വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതും ഇവിടുത്തെ ഫുഡിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ അവനാണ് നമുക്ക് പറഞ്ഞു തന്നതും ഇവിടുത്തെ ഷെഫിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നത് അവനായിരുന്നു ഇവിടുത്തെ ഫുഡിൻ്റെ ഇത്രയുമധികം ഞങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണവും അവൻ കാരണമാണ് ഇപ്പോൾ സ്ഥലത്തില്ല അവൻ ഇപ്പോൾ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് അവനെ കാരണം ഇത്രയും നല്ലൊരു സ്പോട്ടിലും കാര്യങ്ങളും പരിചയപ്പെടുത്തി തന്നതും അവനായിരുന്നു ഇവൻ ഇവിടുത്തെ എല്ലാം തന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളും എല്ലാം സജഷൻ ചെയ്ത് തന്നിരുന്നത് അവനായിരുന്നു ഇവിടുത്തുകാരൻ തന്നെയായത് കൊണ്ട് അവന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാമായിരുന്നു പിന്നെ ഇവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തരാറുണ്ടായിരുന്നു അതുകൊണ്ടുത്തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇവിടുത്തെ ഇതുമായിട്ട് നല്ല ഇതുണ്ടായിരുന്നു ഒന്ന് രണ്ടു വട്ടം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് അവൻ ഇല്ലാണ്ട് വന്ന് കഴിക്കുന്നത് ഇപ്പോൾ ഒരു ഇത് ഇത്രയും ഒരു മിസ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും നല്ല രീതിയിൽ നമ്മൾക്ക് ഈ ഇതുമായിട്ട് ഒരു ബന്ധം തന്നത് അവനാണ് എൻ്റെ ഫ്രണ്ട് കാരണമാണ് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയതും എല്ലാം